എനിക്കു പൊതുവെ പാചകം ചെയ്യാനൊരു രണ്ടു മൂന്നു മണിക്കൂർ കൂടിപ്പോയാൽ മൂന്ന് മണിക്കൂർ ഒക്കെ വേണ്ടി വരും കാരണം വെച്ചാൽ പാചകത്തിൽ കുറച്ച് പുറകിലോട്ട് ആയതുകൊണ്ട് കുറച്ച് അതുകൊണ്ടാണ് ഇത്രയും സമയത്ത് ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സമയം എടുത്തുണ്ടാക്കിയത് എൻ്റെോർമയിൽ ഞാൻ മീൻ കറിയാണ് എൻ്റെ വീട്ടിൽ പൊതുവെ മീൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഓരോ ദിവസം വെറൈറ്റി ഒരു പല പല മീനുകളൊക്കെ വാങ്ങിക്കും എന്നുവെച്ചാൽ എന്നും ഒരുപോലത്തെ മീൻ വാങ്ങില്ല വല്ല എല്ലാ ദിവസം കുറച്ച് വ്യത്യസ്തമായ മീനുകളൊക്കെയായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് അമ്മയായിരിക്കും കൂടുതലും പാചകം ചെയ്യുന്നത് അപ്പം അമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ല രുചിയാണ് കഴിക്കാനൊക്കെ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയില്ലാത്ത സമയത്ത് ഒരു ദിവസം എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു മീൻ വാങ്ങിച്ചിട്ട് ചെയ്യാം കറി വയ്ക്കാൻ പറഞ്ഞ സമയത്ത് ഒരു അമ്മ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ മീനിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും കാരണം എല്ലാ മീനിനും ഒരേ ടേസ്റ്റ് അല്ല അമ്മ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വേറെ ആണ് അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ കൂടുതലും നമുക്ക് ആ ഒരു കൈപ്പുണ്യം കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കങ്ങനെ വരാറില്ല അപ്പോൾ അന്നൊരു ദിവസം എൻ്റെടുത്ത് ഇങ്ങനെ മീൻകറി വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടു കാരണം ഇത് ഈ ഒരു മീൻ എങ്ങനെ ഉണ്ടാക്കണം അമ്മ ഉണ്ടാക്കുന്ന രീതിക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാനാ സമയത്ത് അമ്മയെ വിളിച്ചു ഫോൺ വിളിച്ചു അമ്മയില്ലാത്ത സമയമായിരുന്നു അത് അപ്പോൾ അമ്മയെ ഫോൺ വിളിച്ചു ചോദിച്ചു പിന്നെ യൂട്യൂബ് ഒക്കെ കുറേ സർച്ച് ചെയ്ത് ഒക്കെ നോക്കി അതിലൊക്കെ തിരഞ്ഞുപിടിച്ചാണ് ഞാനാ മീൻകറി ഒക്കെ റെഡി ആക്കി കൊടുത്തത് ഉണ്ടാക്കി കൊടുത്തത് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തുണ്ടാക്കേണ്ടി വന്ന ഒരു പാചകം എന്ന് പറയുന്നത് മീൻകറി വെച്ചിട്ടുള്ള മീൻകറി തന്നെയാണ്